ഹലോ ആ പൊന്നു ബേക്കറി അല്ലേ അ അ നമുക്കെ ഒരു കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയായിരുന്ന് കേട്ടോ അതെ ഇത് നമ്മൾ ഇവിടെ ബെഞ്ചമിനിൽനിന്നുള്ള ആളാണെ ബെഞ്ചമിനിൽനിന്നുള്ള ബേബിച്ചനാണ് അ അ സാറെ അവിടെ ഏതൊക്കെ വെറൈറ്റിയാ സാറെ ഇപ്പം കേക്ക് ഏറ്റോം ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഏതെന്ന് പറയാമോ ഒന്ന് പറയാമോ അ അ നമ്മൾ നേരത്തെ തന്നെ ചെയ്ത് തരില്ലെ സാറെ അതോ നമ്മൾ ഇപ്പോൾ നമ്മൾ തന്നെ ചെയ്യുന്ന അല്ലെ അ അ നമ്മൾ ഈ പ്രിസെർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ലല്ലോ അല്ലേ മറ്റുള്ള കൂടെ ഈ നമ്മൾ കഴിക്കുന്നതിനൊക്കെ ഇല്ല കളറ് ഒന്നും ഇല്ലല്ലോ കളർ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ കളറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ അ അ അ ആ നമുക്കൊരൂ രണ്ട് രണ്ട് രീതി രണ്ട് രീതിയിൽ തരണം കാരണം രണ്ട് രണ്ട് പാർട്ടിക്ക് കൊടുക്കാനാണ് ഒന്ന് നമുക്ക് ആവശ്യത്തിനും ഒന്ന് നമ്മുടെ റിലേറ്റീവിനും കൊടുക്കാനാണെ ആ അത് ഒന്ന് നമുക്ക് ഒന്ന് പുറത്തേക്ക് കൊടുത്ത് വിടാനാ രണ്ട് ദിവസത്തേക്ക് ഇരിക്കണം രണ്ട് ദിവസം ഇരിക്കണം അപ്പം ആ രീതിക്ക് കേക്ക് ഒരു ഒരെണ്ണം പാക്ക് ചെയ്ത് തരണം അതവർക്ക് ട്രെയിനിൽ കൊണ്ടുപോവാനാണെ അ അ അ സാറെ നിങ്ങൾക്ക് വേറെ ഏതോ ഒരു അടുത്തുള്ള ഒരു വേറൊരു ബ്രാഞ്ച് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് അവിടെയാണോ നമുക്ക് വരാൻ സൗകര്യം അതോ ഇപ്പം ഇനി ഞാൻ അവിടെ വന്നിട്ടുള്ളൂ പുതിയതായിട്ട് ഒരു ബ്രാഞ്ച് ഇവിടെ ഓപ്പൺ ആയെന്ന് പറഞ്ഞു അ സാറ് ആണല്ലോ മെയിൻ ബ്രാഞ്ചിൽ ഇരിക്കുന്നത് അല്ലേ ആ എനിക്കാ ബ്രാഞ്ച് എനിക്ക് ഞാൻ അവിടെ വന്നു ഞാൻ അവിടത്തെ ഒരു കസ്റ്റമർ ആണ് കാരണം ഞാൻ അവിടുത്തെ ടേസ്റ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാ ഞാൻ പിന്നെ അവിടെത്തന്നെ റിലേറ്റീവ്സിന് ഒക്കെ അവിടുന്ന് തന്നെയാ നമ്മൾ സാധാരണ വാങ്ങിച്ചുകൊടുക്കുന്നത് ആ അപ്പം അ പറഞ്ഞോ സാറെ അ ആ ഓക്കെ അ അ

ആ നമുക്ക് അപ്പം ഇതിനകത്ത് ഈ പ്ലമ്മ് ആണോ ഉദ്ദേശിച്ചേ റിച്ച് പ്ലം ആയിരിക്കത്തില്ലേ റിച്ച് പ്ലം ആയിരിക്കുമല്ലോ അല്ലേ നല്ല ഫ്രൂട്ട്സും എല്ലാം ചേർന്ന് അ അപ്പം ആ പിന്നെ നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അല്ലേ നമുക്ക് അല്ലേ അപ്പം നമുക്ക് പിന്നെ ആ അ സാറെ എന്നാൽ ക്യാഷ് പിന്നെ ജിപേ ആണോ അതോ അക്കൗണ്ടിങ്ങേ എങ്ങനെയാണ് ഞങ്ങൾക്ക് ക്യാഷ് ആ ഇല്ല അല്ലേ അപ്പം ഞാൻ അത് സാറെ അന്നേരം ഞങ്ങൾക്ക് ഒരു ഒരു പാക്കറ്റിനകത്ത് ഒരു മൂന്ന് കിലോ കേക്ക് ഉണ്ടാവണം അപ്പം മൂന്ന് കിലോ കേക്ക് നമുക്കൊരൂ എത്ര പിസ് കിട്ടുവായിരിക്കും നമുക്കൊരു എഴുപത് പീസ് എഴുപത് ഗ്രാം വരുമ്പോൾ എഴുപത് ഗ്രാമൊക്കെ വച്ച് നമുക്കൊരു ഇരുപത് പിസ് കിട്ടത്തില്ലേ അപ്പം അതൊന്ന് ആ ഒരു എഴുപത് ഗ്രാമിൻ്റെ വച്ചൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വച്ചേക്കുമോ ആ പിസ് ചെയ്ത് വെയ്ക്കാം അത് പിന്നെ മറ്റേ ഒരു മൂന്ന് കിലോടെ ആണേ അപ്പം മൂന്ന് കിലോ അത് അത് കട്ട് ചെയ്യേണ്ട നമുക്കത് നന്നായിട്ട് പാക്ക് ചെയ്തേക്കണം കാരണം അത് പുറത്ത് കൊണ്ടുപോകാനുള്ളതുകൊണ്ട് അഡീഷണൽ പാക്കിങ് ഇട്ട് ചെയ്യണെ കാരണം പൊടിഞ്ഞ് പോകാനുള്ള സാധ്യത കൂടുതൽ അല്ലേ ആ ഓക്കെ ഓക്കെ ഓക്കെ സാറെ ഓക്കെ സാറെ താങ്ക് യൂ